ഹലോ ഹലോ ഇത് മുവാറ്റുപുഴ ഗവൺമെൻറ് എന്നും ആശുപത്രി നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്യാംപെയിൻ ആണോ ഞാന് ഇപ്പം ആ ക്യാമ്പിലോട്ട് എനിക്ക് ആ ക്യാമ്പിലൊന്ന് രജിസ്റ്ററ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്കതിലൊന്ന് കയറാൻ ഒന്ന് ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ പ്രൂഫ് ബാക്കി ഘടങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതും അപ്പം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് അതിൻ്റെ ടൈമ് അതായത് ഇപ്പം ബ്രോ ഇപ്പം നിങ്ങളിപ്പം വിളിച്ച ഈ എത്ര സമയത്തായിരിക്കും അങ്ങോട്ട് വരേണ്ടത് എനിക്ക് ആ ക്യാമ്പിലൊന്ന് ചേരാനായിരുന്നു അപ്പം നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നാൽ മതിയോ ആ സമയത്ത് വന്നാൽ മതിയോ പിന്നെ ഇതിന് വേറെന്തേലും ഫോം അതായത് ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ അങ്ങനെ എന്തേലും കൊണ്ടുവരണോ അതുപോലെ തന്നെ ഇപ്പം എനിക്കിപ്പം നാളെ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ വരാം ക്യാമ്പിലോട്ട് ഞാൻ വരാം അപ്പം രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഇതൊക്കെ വേണമെന്ന് പറയാവോ പിന്നെ ഇതുപോലെ ഇപ്പം ക്യാമ്പല്ലേ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഹെൽത്തിൻ്റെ ക്യാമ്പായത് കൊണ്ട് എന്തേലുമൊക്കെ ഹോസ്പിറ്റൽ ഐറ്റംസൊക്കെ എന്തേലുമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ട് വരണോ